ചേട്ടാ നമസ്കാരം ഞാൻ വിളിച്ചതേ രാത്രി നമുക്ക് ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് രാത്രി വീട്ടിലേയ്ക്ക് അതായതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കോട്ടായി അല്ലെങ്കിൽ പെരുകോട്ടുകുറുശ്ശി ഭാഗത്തേക്ക് രാത്രി ഓട്ടോയോ ക്യാബ് സർവ്വീസൊ എന്തെങ്കിലും കിട്ടുമോന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാന് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ക്യാബ് അല്ലെങ്കിൽ ഓട്ടോ രാത്രി ഏകദേശം ഒര് പതിനൊന്നര മണിക്കാണ് ഞാന് ഒലവക്കോടെത്തുക അപ്പോൾ അത് കഴിഞ്ഞിട്ടെനിക്ക് വല്ല ഓട്ടോ കിട്ടുമൊ ആ സമയത്ത് അപ്പോൾ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പെരുകോട്ടുകുറുശ്ശി സെൻറ്ററ് അവിടെക്കാണ് എത്തേണ്ടത് അപ്പോ ആ സ എത്ര ചാർജാവും അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങള് ഒന്നറിയാൻ വേണ്ടി വിളിച്ചാണ്